സ്കൂളിൽ പൊതുവേ ആയിട്ട് ശാസ്ത്രമേളകൾ കായികമേള അങ്ങനെ കുറേ മേളകൾ ശാസ്ത്രമേളകളില് ഞാന് എനിക്ക് എന്റെതായിട്ട് എനിക്കുണ്ടാക്കാന് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ചേട്ടന്റെയോ അപ്പന്റെയോ ഹെല്പ്പോടു കൂടി ഞാൻ എന്തേലും ഉണ്ടാക്കിക്കൊണ്ട് ആണ് അതിൽ പ്ലസ്ടൂവിലാണ് എനിക്ക് ശാസ്ത്രമേളയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അത് കൊറോണ ടൈമിൽ ആയാത് കൊണ്ട് ഓണ്ലൈനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് കായികമേളകൾ ആണെങ്കിൽ ഞാന് കൂടുതലായിട്ടും ഉപാന്യാസത്തിനാണ് ഞാന് പോവാറുള്ളത് അതിന് ഏനിക്ക് ഞാന് പങ്കെടുത്ത്ത്താത്തീൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നീട് എന്ന് പറയുന്നത് കായികമേള എന്ന് പറയുന്നത് സ്പോട്ട്സ്സാണ് അപ്പോൾ സ്പോട്ട്സ്സിലാവുമ്പോൾ ഞാന് കൂടുതലായിട്ട് പോവാറുണ്ട് എനിക്ക് അതിലൊന്നും കിട്ടിയിട്ടല്ല പിന്നേ എന്ന് പറയുന്നത് എന്റെ കലോത്സവങ്ങളില് ഞാന് കൂടുതലായിട്ടും എസ്സെ റൈറ്റിങ്ങിനാണ് പോവാറുള്ളത് അതിൽ പോണേല് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് പങ്കെടുക്കാന് പറ്റിയിട്ടുണ്ട് പിന്നെ സ്കൂളുകളിൽ പൊതുവേ ഇപ്പം കേരളത്തിലാണെങ്കില് സ്കൂളുകളില് പൊതുവേ നല്ല രീതിക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പിള്ളേരുടെ പട പഠനത്തിനോടൊപ്പം കായികം കല എന്നിവയൊക്കെ കൂട്ടിച്ചേര്ക്കാന് ശ്രമിക്കുന്നുണ്ട് അത് ഗവണ്മെന്റ് സ്കൂളുകളില് മാത്രം പക്ഷെ സി ബി എസ് സി ഐ സി എ സി സ്കൂളുകളിൽ ഇപ്പോഴും പഠിത്തം തന്നെയാണ് ഇമ്പോട്ടൻ്റ് എന്ന രീതിയിലുള്ള പഠന സാമഗ്രികളാണ് അവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു ഒരു സാധാരണ ഒരു വിദ്യര്ത്ഥിനിക്ക് പഠിപ്പോടൊപ്പം തന്നെ കലയും കായികവും കൊണ്ടുപോവാന് കഴിയുന്നു പക്ഷെ സി ബി എസ്സി സി ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിക്കുമ്പോൾ അവര്ക്ക് കൂടുതലായിട്ട് അവർ പഠിക്കണം എപ്പോഴും പഠിച്ച് എപ്പോഴും വലിയ നിലയില് പഠിച്ച് ലൈക് ഒരു വലിയ ഒരു പ്രാവണ്യമാവുന്നൊരു ഓഫീസില് അവര്ക്ക് ജോലി കിട്ടണമെന്ന രീതിക്കുള്ള ഒരു പഠിപ്പ് ആണ് അവർക്ക് അപ്പം അതുകൊണ്ടു തന്നെ സാധാരണ ഒരു കുട്ടിക്ക് സ്കൂളിൽ അത്യാവശ്യം നല്ല രീതിക്ക് സാഹചര്യം അല്ലെ ഉണ്ടാവൂ ആ കുട്ടിയുടെ കഴിവ് ഇതാക്കാനും അവരുടെ സ്കില്ഡെവലപ്പ്മെൻ്സായി നടക്കുന്നുണ്ട് പക്ഷെ വേറെ സി ബി എസ് സി ഐ സി ഐ സി സ്കൂളുകളില് നോക്കുകയാണെങ്കില് നമ്മൾക്ക് ഒന്നും ഒന്നും കാണാന് പറ്റുന്നില്ല ഞാന് ഒരു ഏഴ് അഞ്ച് വര്ഷങ്ങള് ഞാന് സി ബി എസ് സിയിൽ നിന്നു അവിടെ ഒന്നും ഞാനിതൊന്നും ചെയ്തിട്ടുണ്ടാര്ന്നില്ല പിന്നീട് ഞാന് ഗവണ്മെന്റ് സ്കൂളുകളിലേക്ക് വന്നപ്പൊഴാണ് ഞാന് കൂടുതലായിട്ട് ചെയ്ത് തുടങ്ങിയത് അതുകൊണ്ടു തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെയാണ് ചെയ്യാന് കൂടുതല് സാഹചര്യം കിട്ടിയത് അതുകൊണ്ടു തന്നെ ഞാനെപ്പൊഴും ഒരു ഗവണ്മെന്റ് സ്കൂളില് ഞാനെപ്പൊഴും കായികവും കലയും ഒരുമിച്ച് കൊണ്ടുപോവാന് എനിക്ക് സാധിച്ചിട്ടുള്ളൂ